ഹലോ ആ ആ ആരാണ്

ആ എന്താ അത് ആ അത് തിരുമ്മലിലൂടെ മാറും പക്ഷേ ഒരു പത്തു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും ഇവിടെ പിന്നേ നമ്മുടെ ക്ലിനിക്കിനകത്ത് ഓ അപ്പം പത്തു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരും അപ്പം ഇവിടെത്തന്നെ ആഹാരവും കാര്യങ്ങളുമെല്ലാം കിട്ടും റൂം കിട്ടും എല്ലാ ഫെസിലിറ്റീസുമുണ്ട്

ചില സാധനങ്ങളിലൊക്കെ പഥ്യമുണ്ട് ചില ഐറ്റങ്ങളൊക്കെ നമുക്കൊഴിവാക്കേണ്ടി വരും മ് ചികിത്സ നടന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചു കാലത്തേക്കിറച്ചി മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയൊന്നൊഴിവാക്കുക ഒരുപാട് പുളിയുള്ള ഐറ്റങ്ങൾ കാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കണം അപ്പം പച്ചക്കറി ആഹരമായിരിക്കും നല്ലത് പിന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റെന്നു പറയുമ്പോൾ ഇവിടെ കിടന്നുള്ള ചികിത്സയാണിത് കാലിൻ്റെ മുട്ടിലല്ലേ പ്രശ്നമെന്നു പറഞ്ഞത് രണ്ട് രണ്ട് രണ്ട് മുട്ടിനുമുണ്ടോ അതോ ഒരു മുട്ടിനേ ഉള്ളോ രണ്ടു മുട്ടാണ് അപ്പം അത് അതിനുള്ള ചികിത്സയെന്നു പറഞ്ഞാൽ അത് കിഴി കുത്തി നല്ലതു പോലെ ഒറ്റ വെക്കുകയും വേണം കിഴി കുത്തി കിഴി കുത്തുക എന്ന ചികിത്സയും പിന്നെ തിരുമ്മൽ തിരുമ്മലുണ്ട് കുഴമ്പിട്ട് കുഴമ്പിട്ട് തിരുമ്മും പിന്നെ അത് ഒറ്റ കിഴിയെ ഉള്ളു ഈ രണ്ടു ട്രീറ്റ്മെൻറ്റാണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത് പിന്നെ കഷായങ്ങളുണ്ട് ഉള്ളിലോട്ടു കഴിക്കാനുള്ളത് പത്തു ദിവസത്തേക്കൊക്കെ ആകുമ്പോൾ ഒരു എല്ലാം കൂടാഹാരമെല്ലാം കൂടെയല്ലേ എല്ലാ ആഹാരവും ആഹാരവും പിന്നെ സ്റ്റേയും എല്ലാം കൂടെയല്ലേ അത് ഒരു ഒരു ലക്ഷം രൂപയൊക്കെ അടുത്തു വരും ആ അതെ സത്യം പറഞ്ഞപ്പം ഇതിനൊക്കെ ഇല്ല ഇല്ല ആ നമുക്ക് റൂമൊക്കെ സെറ്റ് അറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം റൂമിൻ്റെയിലൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ചു തരാം നിങ്ങൾ വാ ഏതായാലും വാ വാ ഇവിടെ വരെ വന്നു നോക്കൂ വന്ന് ഇവിടെ ഇവിടുത്തെ സിറ്റുവേഷനുമൊക്കെ കണ്ടു കഴിയുമ്പം അറിയാം മനസ്സിലാകുമല്ലോ ആൾക്കാരൊക്കെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അവരോടൊക്കെ ചോദിച്ചു നോക്കൂ അപ്പം മ മനസ്സിലാകും ആ റൂട്ട് ആ റൂട്ട് മാപ്പിട്ടു തന്നേക്കാം അത് നിങ്ങളെ സൗകര്യം പോലെ ആയിക്കോളൂ ഏതു ദിവസം വന്നാലും കുഴപ്പമില്ല ഞാനെപ്പോഴും ഫുൾ ടൈം ഇവിടെത്തന്നെയുണ്ട് മേടിക്കാൻ പുറത്തു നിന്നും പോകത്തില്ല ഇവിടെത്തന്നെ വീട്ടിൽത്തന്നെ കാണും ഹോഡ്പിറ്റലിൽത്തന്നെ കാണും ഇല്ലേ ഞാനെങ്കിൽ ഇവിടെ വേറെ ആൾക്കാരുണ്ട് വേ വേറെ ഡോക്ടേഴ്സുണ്ടിവിടെ ഏതു സമയത്തു വന്നാലും കുഴപ്പമില്ല

ഇല്ലില്ല ഇതിനകത്തൊരു സൈഡ് ഇഫക്റ്റുമില്ല ഇത് ആയുർവേദമല്ലേ ഇതിനകത്തൊരു സൈഡ് ഇഫക്റ്റുമില്ല എല്ലാം നല്ല ക്ലിയറാണ് എല്ലാം ഇവിടെത്തന്നെ ഞങ്ങൾ തന്നെ എല്ലാം മരുന്നുകളും പുരട്ടാനെല്ലാമുണ്ടാക്കുന്നതിവിടെത്തന്നെ ഇവിടെ തന്നെയാണ് ഇവിടെത്തന്നെ എടുത്ത് ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ച് മരുന്നുകളൊക്കെ വെച്ചു പിടിപ്പിച്ച് പിന്നെ കൃഷി ചെയ്യുക ആ പിന്നെ റെസ്റ്റുണ്ട് അതൊക്കെ ഇവിടെ വാ വന്നു കഴിയുമ്പം പറയാം കേട്ടോ എന്നാൽ ശരി ഓക്കെ